ടെക്നോളജി ഈ കാലത്ത് ഭയങ്കര യൂസ് ഉള്ളത് ആണല്ലോ ഇപ്പം ഈ കുറേ ജോലി സ്ഥലത്തൊക്കെ ഇപ്പോൾ ഈ എ ഐ ഒക്കെ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ഉണ്ട് ഈ ആപ്സ് നമ്മൾ രൂപിക്കുന്നത് എന്താണ് ഡേ ടു ഡേ ലൈഫിൽ ചാറ്റ് ജി പി റ്റി അങ്ങനയൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആവുന്നു ഈ ബിസിനസ് ഫീൽഡ് എസ്പെഷ്യലി ഇത് ഭയങ്കര യൂസ്ഫുൾ ആവുന്നുണ്ട് കുറേ ഐഡിയാസ് നമുക്ക് ഇങ്ങനെ കണ്ടെത്താം ഇപ്പം ഇങ്ങനെ ഈ ആപ്പിൽ പിന്നെ സാംസങ് ഫോൺസ് അങ്ങനെയൊക്കെ അവരി ഇപ്പം ഒരു ഈ എ ഐ സിസ്റ്റം ഉണ്ടല്ലോ ഫോണിൽ അത് നമ്മൾ എന്നിരുന്നാലും നല്ലതായിട്ട് സഹായിക്കും കുറേ ഏരിയാസിൽ നമുക്ക് ഇനി ന്യൂസ് ഡേ ടു ഡേ ന്യൂസൊക്കെ കിട്ടാൻ അതൊക്കെ നല്ല ഹെൽപ്ഫുുൾ ആണ് പിന്നേ കുറേ ഏരിയാസ് നല്ല ഇതാണ് നല്ല യൂസ്ഫുള്ളും ഈ ടെക്നോളജിയും ഇപ്പം കുറേ മോഡേൺ വേൾഡ് ഉണ്ട് അല്ല ഇപ്പം കുറേ ട്രഡീഷണൽ ഈ തിങ്ക്സൊക്കെ അതൊക്കെ ഇപ്പം ഈ ഈ കാലത്ത് ഇപ്പോൾ എക്സ്പയേര്ഡ് പോലെ ആണല്ലോ എന്താണ് ഇപ്പം കുറേ ആൾക്കാർ ഈ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്ന നമുക്ക് ഇതാ ഈ കാലത്ത് അവർ എല്ലാ ഇൻഫർമേഷനും എല്ലാം ഐഡിയാസൊക്കെ കമ്പ്യൂട്ടറും ഈ ഇന്റര്നെറ്റ് ബേസിക്കലി അതിലാണ് അവർ എക്സ്പെക്റ്റ് ചെയ്തു കുറേ കുറേ കാര്യങ്ങളൊക്കെ അതിലാണ് മോർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് നല്ല യൂസ് ഞാൻ പറഞ്ഞത് പോലെ എക്സാമ്പിൾസൊക്കെ കുറേ ഉണ്ട് ഇപ്പം ലിങ്ക്ഡ് ഇൻ പ്രൊഫൈൽ ഈ ഈ ജോലിക്കാർ ഈ വലിയ കമ്പനീസ് ഇങ്ങനെ ബിസിനസ്സ് കമ്പനീസ് ജി പി മോഡൽസ് അങ്ങനത്തെ കമ്പനീസൊക്കെ അവർ ലിങ്ക്ഡ് ഇൻ വഴി ആണ് കണ്ടു പിടിക്കുന്നത് അവരുടെ പ്രൊഫൈലും പിന്നെ അവരുടെ അവരുടെ ഡിഗ്രീസൊക്കെ അങ്ങനെ നോക്കിയിട്ടാണ് അവർ കണ്ടു പിടിക്കുന്നത് അപ്പം അവർക്ക് ഇച്ചിരി കൂടി എളുപ്പമാവും അത് കണ്ടെത്താൻ ആൻഡ് അവരുടെ സീറ്റ് ഐ മീൻസ് അവർ പ്രയോറ്റൈസേഷൻ ഈ ഈ സ്ഥലത്ത് ഈ സ്ഥലത്തുള്ള നമുക്ക് അവർക്ക് കണ്ടു പിടിക്കാൻ ഭയങ്കര എളുപ്പം ഈ ലിങ്ക്ഡ് ഇൻ വഴി ഇത് കുറേ ആപ്പ് ഇത് കുറേ ആപ്സ് ഉണ്ട് ഇപ്പം ഈ ടെക്നോളജി ഇപ്പോൾ നമ്മൾ ഈ ഈ വേൾഡ് ഇപ്പം ഇങ്ങനെ ഡെവലപ്പ് ചെയ്തു കൊണ്ടിരിക്കുക അപ്പം നമുക്ക് ഇങ്ങനത്തെ ഐറ്റംസിനെ എക്സ്പെക്ട് ചെയ്യാം ഇപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം ഈ ടെക്നോളജി നല്ല യൂസ്ഫുള്ളും പിന്നെ ഞാൻ പറഞ്ഞത് പോലെ ഇപ്പം പിന്നെ ഈ ഗൂഗിള് ഗൂഗിള് പിന്നെ അങ്ങനെ ഇപ്പം ഇന്റർനെറ്റ് ബ്രൗസർ അതൊക്കെ ഇൻഫോർമേഷൻ എക്സ്ട്രാക്റ്റ് ചെയ്യാന് നല്ല സിംപിളും അവർക്ക്

ഈ ടെക്നോളജി ഈ വേൾഡിന്റെ ഇങ്ങനെ ടേക്ക് ഓവറ് ചെയ്യാൻ നോക്കാനുള്ള ഡോമിനേറ്റ് ചെയ്തു നോക്കിയപ്പം കുറേ ജോലികൾ ചിലപ്പം റിപ്ലേസ് ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പം ഇത് കുഴപ്പമുണ്ട് പക്ഷെ നമ്മുടെ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമുക്ക് അത് എങ്ങനെ അഡ്ജസ്റ്റെ് ചെയ്യണം

അത് അത് നമുക്ക് എന്താണ് പറയുക അത് ഇങ്ങനെ മെയിന്റയിൻ ചെയ്യാന് പഠിക്കണം അതിനൊക്കെ അതാണ് ഒരു ഒരു ഗ്രോയിങ്ങ് വേൾഡ് അങ്ങനെ അവനൊക്കെ പറയാം ഇപ്പോൾ നമുക്ക് എല്ലാം എന്താണ് പറയുക നമ്മുടെ പോലെ ചിന്ത അങ്ങനെ ഉണ്ട് ഒന്നും ഉണ്ടാവില്ല ഇത് നമ്മുടെ പോലെ മനുഷ്യൻ പോലെ ഉള്ളൂ എ ഐ പക്ഷേ അതേക്കാളും ബുദ്ധിയുള്ള ഒരു സാധനമാണ് ടെക്നോളജിയും എഐയും അപ്പോൾ നമുക്ക് കുറേ തിങ്സിനൊക്കെ എങ്ങനെ എക്സ്പക്റ്റ് ചെയ്യാം ഇത് നമുക്ക് ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടായാൽ നമുക്ക് ഇതിൽ തന്നെ എങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാം ഇങ്ങനെ കുറേ സാധനങ്ങൾ പിന്നെ പിന്നെ ഈ ഞാൻ പറഞ്ഞ ആ ഈ ബിസിനസ്സ് ഫീൽഡ് ഞാൻ പറഞ്ഞത് പോലെ ബിസിനസ് ഫീൽഡ് നേരത്തെ പറഞ്ഞത് പോലെ ഈ ബിസിനസ് ഫീൽഡിൽ നമുക്ക് കുറേ എക്സ്പെക്റ്റ് ചെയ്യാം ഈ കാൽക്കുലേഷൻസും പിന്നെ കുറേ ഐഡിയാസ് നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്യാം അതി നിന്ന് അതിൽ തന്നെ അപ്പോൾ ഈ ട്രാൻസ്ലേഷൻസും അതൊക്കെ നമുക്കും ഇങ്ങനെ സ്പാനിഷ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം അതൊക്കെ ഹെൽപ്പ് ചെയ്യും അതിൽ നമുക്ക് ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാവില്ല അത് അത് നമ്മൾ നോക്കി അല്ല സെർച്ച് ചെയ്താൽ നമുക്ക് അത് കിട്ടും അത് അങ്ങനത്തെ ടൈപ്പ് അങ്ങനത്തെ ഒക്കെയാണ് ടെക്നോളജി നമുക്ക് ഉപയോഗിക്കാം